സയൻസ് പ്രോജക്ടിൽ പങ്കെടുത്ത എൻ്റെ ആദ്യത്തെ അനുഭവമെന്ന് പറയുന്നത് പൊങ്ങിക്കിടക്കും മുട്ട എന്നുള്ള ഒരു ഒരു പ്രവർത്തനമായിരുന്നു അതായത് ആദ്യം ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നേ ആദ്യം ഒരു മുട്ടയെടുത്ത് ഒരു വെള്ളം നിറച്ച ഗ്ലാസ്സിലേക്ക് ഇട്ടു അപ്പം എന്തുപറ്റി മുട്ട താണുപോയി കാരണം ഭാരമുള്ള സാധനം വെള്ളത്തിലിടുമ്പോൾ സ്വാഭാവികമായി അത് താണു പോവുമല്ലോ മുട്ട താണു പോയി പിന്നീട് പൊക്കാൻ എന്താണ് വഴി ആ ഓരോ സ്പൂൺ ആയിട്ട് ഉപ്പ് ചേർത്ത് മെല്ലനെ മുട്ട പൊട്ടാതെ ഇളക്കി അലിയിപ്പിച്ച് കൊണ്ടേയിരുന്നു അങ്ങനെ ഒരു മൂന്നാലഞ്ച് സ്പൂൺ നിറച്ചും ഉപ്പ് ആ വെള്ളത്തിലേക്ക് ചേർത്തപ്പത്തേനും പതിയെ മുട്ട പൊങ്ങി വരാൻ തുടങ്ങി അങ്ങനെ ഒരു നാല് സ്പൂൺ ചേർത്ത് കഴിഞ്ഞപ്പത്തേനും മുട്ട നല്ല രീതിയിൽ പൊങ്ങി വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കുന്ന അവസ്ഥ അതായത് ഒരു ഒരു ഭാരവില്ലാത്ത ഒരു പ്ലാസ്റ്റിക് ബോൾ കിടക്കുന്നതുപോലെ ആ വെള്ള ആ ഗ്ലാസ്സിലെ വെള്ളത്തിൻ്റെ മുകളിൽ ആ മുട്ട കിടക്കാൻ തുടങ്ങി അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വെള്ളത്തിൽ മുട്ട ഇട്ട സമയത്ത് വെള്ളത്തിനെക്കാളും സാന്ദ്രത കൂടുതലായിരുന്നു മുട്ടയ്ക്ക് അതുകൊണ്ടാണ് മുട്ട പൊങ്ങി പോയത് ഉപ്പു ചേർത്ത സമയത്ത് എന്തുപറ്റി വെള്ളത്തിൻ്റെ സാന്ദ്രത കൂടി കൂടി വന്നു അപ്പോൾ മുട്ടയെക്കാളും കൂടുതൽ സാന്ദ്രത നമ്മുടെ വെള്ളത്തിന് വന്ന സമയത്ത് അതായത് ഉപ്പുവെള്ളത്തിന് വന്ന സമയത്ത് മുട്ട സ്വാഭാവികമായും മുകളിലേക്ക് പൊങ്ങി വെള്ളത്തിൻ്റെ മുകളിൽ കിടന്നു ഈ പ്രൊജക്റ്റ് ആയിരുന്നു ആദ്യമായിട്ട് അവതരിപ്പിച്ചത് കുഞ്ഞായിരുന്നില്ലേ വള എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നേ മുട്ട പൊങ്ങി വരുവാണൊ ആ ഭയങ്കര സന്തോഷമായിരുന്നു അത് ടീച്ചർമാരൊക്കെ വന്ന് അവരോടൊക്കെ പറഞ്ഞ് കൊടുത്തു എല്ലാവർക്കും വളരെ സന്തോഷമായി ഒരു ശാസ്ത്രമേളയിലായിരുന്നു ഇത് അവതരിപ്പിച്ചത്